ഇന്ത്യയിൽ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പോലെത്തന്നെ അതായത് ഒരു ആറു മാസം മഴ അങ്ങനെ ആണല്ലോ പൊതുവേ പറയുക ആറു മാസം മഴ ആറു മാസം വെയിൽ പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അങ്ങനെ ഒന്നും ഇല്ല പണ്ടത്തെ കാലത്തൊക്കെയാണ് അതൊക്കെ കറക്ട് ആയിട്ട് നടക്കുന്നത് ഇപ്പം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ജൂണിൽ പെയ്യേണ്ട മഴ ചിലപ്പോൾ ജൂലയിലാണ് പെയ്യുക പിന്നെ പെയ്തു തുടങ്ങിയാൽ അതു ഭയങ്കരമായിരിക്കും അത് പ്രളയമാവും പിന്നെ എന്താ പറയുക കുറേ പേർക്ക് അതു ബുദ്ധിമുട്ടാവും അങ്ങനത്തെ ഒരു അവസ്ഥ ആണ് ഇന്ത്യയിൽ പിന്നെ ഈ പുറത്ത് പുറത്തെ രാജ്യങ്ങൾ വച്ചു നോക്കുമ്പം ഇപ്പോൾ ഒരു എന്താ പറയുക ഉദാഹരണത്തിനു പറഞ്ഞാൽ ഗൾഫിൽ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു ആഴ്ച ആ ഒരു കണക്കിന് മാത്രമേ മഴ പെയ്യുള്ളൂ നമ്മുടെ ഇവിടെ പോലത്തെ ഒന്നും പോലെ ഒന്നും മഴ പെയ്യില്ല ചില രാജ്യങ്ങൾ ഏകദേശം എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ആണ് കാലാവസ്ഥയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ത്യയിൽ എന്നു വച്ചാൽ മഴ പെയ്യും മഴ പെയ്യേണ്ട സമയത്തു മഴ പെയ്യും വെയിലുള്ള സമയത്ത് ഭയങ്കര ചൂട് ആയിരിക്കും പിന്നെ വെയിലിൻ്റെ സമയത്ത് ആണെങ്കിലും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും അതായത് സൂര്യാഘാതം അങ്ങനത്തെ പ്രശ്നം അതായത് ഭയങ്കര വെയിൽ ആയിരിക്കും മഴ പെയ്യാൻ തുടങ്ങി എന്തായാലും തുടങ്ങാൻ ഭയങ്കര പാട് ആയിരിക്കും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതു ഭയങ്കര എന്താ പറയുക പ്രളയം ആയിട്ടും കടൽക്ഷോഭം ആയിരിക്കും ആയിട്ടും അങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ സുനാമി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെയാണ്